ചെറുകിട വ്യവസായങ്ങൾ കുമ്മിട്ടികൾ പെട്ടി കടകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോഴും കാശ് കൊടുത്ത് പണം അടക്കേണ്ടി വരുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം മൂലം നമ്മൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഭയം ഇല്ലാണ്ടായി കയ്യിൽ കാശ് വെച്ചിട്ട് നടക്കേണ്ടി വരുമല്ലോ എന്നിട്ടത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ആ ഭയം മനുഷ്യരിൽ നിന്ന് പൂർണ്ണമായിട്ടും കുറഞ്ഞുവരുന്നുണ്ട് കാരണമെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് വഴി ഇപ്പം പണം അടയ്ക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇപ്പം ആർക്കും കയ്യിൽ പൈസ വെച്ച് നടക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടു തന്നെ അത് വളരെയധികം സുരക്ഷിതമാണ് കാരണം അതിലെ ഈ ഇൻ്റർനെറ്റിലൂടെ അടയ്ക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും രഹസ്യ കോഡുകൾ ഉണ്ടാവും ആ രഹസ്യ കോഡുകൾ അടിച്ചാൽ മാത്രമേ നമുക്ക് പണം മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അതുകൊണ്ട് തികച്ചും സുരക്ഷിതമാണ് അതുകൊണ്ട് ആ ആശയം വളരെയധികം സഹായകരമായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ